ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് മൂന്ന് അഞ്ച് രണ്ടായിരത്തി പത്ത് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് ഏഴ് രണ്ടായിരത്തി പതിനേഴ് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്